ഹലോ ആതേ ആ ആ ആ ആ ഞങ്ങൾ അങ്ങനെ ഫാമിലി ടൂറാണോ ആ ഇപ്പം എത്ര ആൾക്കാരുണ്ടാവും ആ അപ്പം ബസ്സ് പാക്കേജ് ഉണ്ടാകും ഉം ആ അതിന് ഏകദേശം ഒരു പത്ത് ഇരുപതിനായിരം രൂപയുടെ അടുത്തുണ്ടാകും ആ അത് സെപ്റേറ്റ് പിന്നെ റൂമ് വേറെ റെന്റ് ഉണ്ടാകും ഏ ഇതില് ഫുഡ്ഡ് മാത്രം ആ യാത്രയിലുള്ള ഫുഡ്ഡ് ആ അതിപ്പോൾ നോർമ്മൽ ആണ് എ വലിയ ഓവർ ചൂട് കാലമല്ലേ ആ അപ്പോൾ കുറച്ച് കുറവുണ്ട് ഇപ്പോൾ തണുപ്പ് കൂടുതലാണെങ്കിൽ ഒരു ജാക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൈയിൽ വെക്കുന്നത് നന്നാകും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നേ ഇവിടെ റൂമിന് ഏകദേശം ഇരുപതാള് ഇല്ലേ എ ഇരുപത് ആളുണ്ടാകുമ്പോൾ ഒര് ഓരോത്തർക്ക് ആയിരം വെച്ച് ഡബിൾ റൂം എടുക്കുവാണെങ്കിൽ ഒര് പത്ത് റൂമ് അല്ലെങ്കിൽ ഹാൾ എടുക്കുവാണെങ്കിൽ ഒരു പതിനായിരം ഉം ആ അതൊക്കെ അവിടെ പറഞ്ഞാൽ മതി അതൊക്കെ സെറ്റാണ് ചില്ലറ പൈസ എന്തേലും കൊടുത്താൽ മതി ആ ഓക്കെ ഓക്കെ ഓക്കെ